ആ ഹലോ ഞാന് മലബാർ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാന് രണ്ട് ദിവസം മുൻപ്പ് ഞാന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഒരു ഫങ്ക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അമ്പത് പേർക്കുള്ള ചിക്കൻ ബിരിയാണി ഞാൻ ചിക്കൻ ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഞാന് ഞാന് എൻ്റെ വീട് കുഴൽമന്നം ഭാഗത്താണ് അപ്പോൾ ഞാന് ഏകദേശം ആ ഒരു ഉച്ചക്ക് ആ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് ഞാൻ എത്തിക്കാൻ പറഞ്ഞത് കറക്റ്റ് സമയത് തന്നെ കറക്റ്റ് ഡെലിവറി ബോയ് കറക്റ്റായിട്ട് തന്നെ എത്തിച്ച് തന്നത് കാര്യം അന്ന് ശരിക്കും അന്ന് പറഞ്ഞാൽ നല്ല മഴയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള സമയം ആയിരുന്നു അപ്പോൾ എന്നാൽ പോലും ഡെലിവറി ബോയ് വേറെ മറ്റ് എന്താ പറയുക ഒഴിവ് കേടുകളോ അല്ലെങ്കിൽ സമയം വൈകിയേൻ്റെ പേരിൽ എക്സ്ക്യൂസുകളോ മറ്റു കാര്യങ്ങളൊന്നും പറയാണ്ട് അദ്ദേഹം കറക്റ്റ് സമയത്ത് തന്നെ ആ കറക്റ്റായിട്ട് തന്നെ ഫുഡും ഡെലിവറി ചെയ്ത തന്നു അപ്പോൾ ഫുഡിൻ്റെ കാര്യം നോക്കുവാണ് എന്ന് വെച്ചാൽ നല്ല ശരിക്കും നല്ല ആ ഒരു റെസ്റ്റോറൻറ്റ് നന്നായിട്ട് തന്നെ ഫുഡ് നന്നായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ നല്ലൊരു ഇത് തന്നെ സേവനം തന്നെയായിരുന്നു അപ്പോളോ കറക്റ്റായിട്ട് എത്തിച്ച് തന്നെ ഡെലിവറി ബോയ്ക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് നന്നായിട്ട് തന്നെ ഫുഡും മറ്റു കാര്യങ്ങളും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ എല്ലാവരും അഭിപ്രായം പറഞ്ഞത് അപ്പോൾ ഇനിയും അവിടുന്ന് നല്ല സേവങ്ങൾ ആണെങ്കിൽ ഇനിയും ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്യാൻ തന്നെ ആഗ്രഹിക്കുന്നത്